ഇപ്പോൾ എനിക്കൊരു സുപ്രധാന തീരുമാനം എടുക്കണ്ടി വന്ന സന്ദർഭത്തെക്കുറിച്ച് പറയുവാണെങ്കില് ഇഷ്ട്ടം പോലെയുണ്ട് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് ഞാന് തുടർപഠന പഠനത്തിനായിട്ട് വേണ്ടീട്ട് ഒരു സുപ്രധാന തീരുമാനവും കാര്യങ്ങളുമൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറെ ആൾക്കാരോട് അഭിപ്രായവും കാര്യങ്ങളക്കെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മള് അത് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മാറ്റി പറയാനോ ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി പോരാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ സാധിക്കില്ല അപ്പോൾ പഠിക്കാൻ വേണ്ടീട്ടങ്ങനെ കുറെ ആൾക്കാരോട് അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മള് അതിന് എന്തായാലും നമ്മള് പൈസ അടക്കണം ഇപ്പം ഇപ്പോൾ നമ്മള് നല്ലൊരു കോഴ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കില് ഏകദേശം ഒരു അഞ്ചാറ് ലക്ഷം രൂപ നമ്മളെങ്ങനായാലും അടക്കണം അപ്പം അതിനെക്കുറിച്ച് നമ്മള് കൂടുതലായിട്ട് അന്വേഷിച്ച് ചെയ്തിട്ടില്ലങ്കിലും നമുക്ക് പൈസ തന്നെ പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മള് കൂടുതലായിട്ട് പുറത്തേക്കാണ് ഞാൻ കൂടുതലായിട്ടും നോക്കിയത് അപ്പം ഞാൻ കൂടുതൽ ആൾക്കാരോടും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയൊന്നൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് ഉപദേശങ്ങള് ഞാൻ എടുക്കാറുണ്ട്